ഹലോ ഡോക്ടർ ആ ഹലോ ഡോക്ടർ എൻ്റെ പേര് ശ്രേയ എന്നാണ് ആ ഡോക്ടർ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര പനിയാണ് ഒരു ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ടല്ലോ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോവും അങ്ങനെ ഇടയ്ക്ക് ഭയങ്കര ചൂടായിരിക്കും ഭയങ്കര ക്ഷീണം ഒക്കെ ആയിട്ടാണ് വരുന്നത് നല്ല തലവേദനയുണ്ട് പിന്നെ ചില ചിലപ്പോൾ തുമ്മും ചില കുറച്ച് നേരം ജലദോഷം ഉണ്ടാവും ഇങ്ങനെ തുമ്മിക്കൊണ്ടേയിരിക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് നിൽക്കും അതുകഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര തലവേദനയാണ് തലവേദന എടുത്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് കുനിയാനോ അല്ലെങ്കിൽ തിരിയാനോ ഒന്നും പറ്റില്ല ഭയങ്കര വേദനയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പം ഭയങ്കര ചൂടും ബോഡി ഫുൾ ആയിട്ട് ഹീറ്റ് ആവും ഇല്ല ഭക്ഷണം കഴിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ പൊതുവേ ഇപ്പം കഴിക്കുന്നത് അങ്ങനെ യൂഷ്വലി കഴിക്കുന്നത് പോലെ ഇപ്പോൾ കഴിക്കാൻ പറ്റാറില്ല തോന്നുന്നില്ല ഇല്ല വെള്ളം വെള്ളം ഇല്ല ഇല്ല ഡോക്ടർ വെള്ളം കുടിക്കുന്നുണ്ട് വെള്ളം കറക്റ്റ് ആയിട്ട് കുടിക്കുന്നുണ്ട് ആ ഇല്ല യൂഷ്വൽ ആയിട്ട് ഉള്ളത് പോലെത്തന്നെയാണ് ഒരു അങ്ങനെ കളർ ചേഞ്ച് ചെയ്തിട്ടൊന്നും ഇല്ല മ് മ് ഓക്കെ ഡോക്ടർ ഓക്കെ ശരി ഡോക്ടർ ഇല്ല ഇല്ല ഡോക്ടർ വേറെ ഒന്നുമില്ല ഞാൻ ഗുളിക കഴിച്ചിട്ട് എന്തെങ്കിലും കുറവില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഡോക്ടറിനെ വിളിക്കാം ആ ഓ ഓ ശരി മ്